നമ്മളുടെ ചിത്രങ്ങൾ അല്ലെങ്കിലേ ഫ്രെയിമുകൾ ഫ്രെയിമാക്കിയിട്ടും ലാമിനേഷൻ ചെയ്തിട്ടും ഒക്കെയാണ് ഞങ്ങൾ നോക്കാറുള്ളത് ഈ പിന്നെ ചില്ലിട്ട് വെക്കുന്ന ഒക്കെ ഫോട്ടോസുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കൂടുതലായിട്ടും മൊബൈൽ ഫോണിൽ ഫോട്ടോയെടുത്ത് അത് ഇങ്ങനെ ലാമിനേഷൻ ചെയ്തിട്ടും ഫ്രെയിം ചെയ്തിട്ടക്കെയാണ് നമ്മള് എടുത്തു വെക്കുന്നത് എന്നാൽ കുറച്ചു കാലത്തിൽ ഞമ്മക്കത് ആ ഫോട്ടോസൊക്കെ നേരിട്ട് കാണാമെന്നൊക്കെയാണ് ഞങ്ങൾ കരുതുന്നത് വീട്ടിൽ വരുന്നവർക്ക് ആണെങ്കിൽ തന്നെ നമ്മളുടെ ഫോട്ടോസ് ഒക്കെ നേരിട്ട് കാണാനൊക്കെ പറ്റും എന്നാൽ പിന്നെ മൊബൈൽ ഫോൺ എടുത്തതാണെങ്കിൽ മൊബൈൽ ഫോണിൽ എടുത്ത ഫോട്ടോസ് ആണെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും കാണിച്ചു കൊടുത്ത അതല്ലാതെ അവർ കാണുകയൊന്നുമില്ല നമ്മളത് ഓപ്പൺ ചെയ്ത് ഇത് ഞങ്ങളെടുത്ത ഫോട്ടോസാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ മാത്രമേ ഈ ഫോട്ടോസ് കാണുകയുള്ളൂ എന്നാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ കുട്ടികളുടെ ഫോട്ടോ ആണെങ്കിലും ജനിച്ച പാടെയുള്ള ഫോട്ടോസൊക്കെ ആണെങ്കിലും അതൊക്കെ നമ്മൾ ലാമിനേഷൻ ചെയ്ത് ഫ്രേയിം ചെയ്തതൊക്കെ വെക്കലുണ്ട് ഈ മെഴുക്ക് കോട്ടിങ് ഒക്കെ ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് എന്നാൽ നമുക്ക് ഒരുപാട് ഫോട്ടോസ് ഒരുപാട് കാലം വരെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക ഒരു കേടുപാടുകളൊന്നും ഇല്ലാതെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം